ഹലോ പാസ്പോർട്ട് സേവാകേന്ദ്രമല്ലേ ആ ഞങ്ങള്ക്ക് ബുക്ക് ചെയ്യാനായിരുന്നു അതായത് ഞാന് വിദേശത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഞാൻ വിളിക്കുന്നത് തൃശൂർന്നാണ് ഒല്ലൂർന്നാണ് അപ്പോള് ഞങ്ങള്ക്ക് വിദേശത്തിന് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോവാനാണ് അപ്പോള് പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല അപ്പോള് അതിനായി പാസ്പോർട്ട് പുതുക്കണം എന്നവര് പറഞ്ഞു അപ്പോള് ഞങ്ങള് എങ്ങനെയാണ് അവിടെ എത്തണോ അതോ എത്ര ടൈമെടുക്കോ എങ്ങനെയാണ് എത്ര മണിക്ക് ഞങ്ങള് അവിടെ വരണം ഒരാഴ്ച്ച ഒരാഴ്ച്ച ബുക്ക് ചെയ്താല് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മണ്ടേ ഓക്കെ അപ്പോള് നമ്മള് അവിടെ വന്ന് കഴിഞ്ഞാല് നമുക്ക് ബുക്ക് ചെയ്തിട്ട് എത്ര ദിവസം വേണം ഇത് നമുക്ക് പുതുക്കിക്കിട്ടാൻ ഒരു വീക്ക് ഓക്കെ എനിക്കത് ഒരു വീക്ക് കഴിഞ്ഞ് രണ്ട് വീക്കിൻ്റെ ഉള്ളില് എനിക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടുകയാണെങ്കില് എനിക്ക് വിദേശത്ത്ക്ക് പോവാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കാമായിരുന്നു ആദ്യം തന്നെ അവിടെ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത് അപ്പോള് അത് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ അട്ത്ത ആഴ്ച്ച അവിടെ വരാം അത് കഴിഞ്ഞ് നിങ്ങള് പത്ത് ദിവസത്തിനുള്ളില് എനിക്കത് തിരിച്ച് തരുമെന്നുണ്ടെങ്കില് എനിക്ക് ഉപകാരപ്പെടും ഉപകാരമായിരിക്കും അപ്പോള് കിട്ടേണ്ടത് ആഹ് ബുക്ക് ചെയ്തില്ലെങ്കില് അവര് പറഞ്ഞു വിദേശത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുന്നു അത് കിട്ടിയില്ലെങ്കിൽ വേഗം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം അവിടേക്ക് വിദേശത്തേക്ക് പോകാനുള്ള സമയം രണ്ട് മാസത്തിൻ്റെ ഉള്ളില് അവിടേക്കുള്ള കാര്യങ്ങള് നമ്മള് എല്ലാം ചെയ്യണം അപ്പോള് അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ബുക്ക് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചുകിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പോള് ഞാനെന്തായാലും അടുത്ത മണ്ടേ വന്ന് അവിടെ ബുക്ക് ചെയ്താൽ എനിക്ക് തിരിച്ച് കിട്ടി എനിക്ക് അങ്ങനെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ആ ഒരു ഏജൻസിയോട് സംസാരിച്ച് പോകാം അല്ലേ ഓക്കെ അതിനെന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടേ അല്ലാ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണോ ആ പിന്നെ ആധാര് ഓക്കെ പിന്നെ ബെർത് സെർട്ടിഫിക്കറ്റ് ഓക്കേ ഓക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പിന്നെ ഇല്ലാ ഓക്കെ ഓക്കെ അപ്പോള് ഞാനവിടെ വന്ന് ബുക്ക് ചെയ്ത് നിങ്ങളെ നിങ്ങളുടെയടുത്തു വരാം ഓക്കെ താങ്ക് യു